എന്റെ ജീവിതത്തില് എനിക്ക് ഏറെ താല്പ്പര്യമുള്ള ഒരു ഐറ്റമാണീ ട്രിപ്പ് ഈ അട്വെന്ജെർ ട്രിപ്പാണേലും ട്രകിങ്ങും ഹൈകിംങ്ങും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ ഞാന് കുറേ പോയിട്ടുണ്ട് എനിക്ക് ഏറെ സന്തോഷം തോന്നിയ

നല്ല പ്രകൃതി ഭംഗിയും ആസ്വദിച്ചു കൊണ്ട് ആണ് നമ്മൾ പോയത് ഒറ്റക്കല്ല നമുക്ക് ഒരു ഗ്രൂപായിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊരു ആറ് ഏഴ് പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കൂട്ടുകാരന്മാർ തന്നെ നമ്മൾ വണ്ടിക്ക്പോയി അവിടെന്ന് ആയിരുന്നു അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അനുഭവം ആ ട്രകിങ്ങിന്റെ അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം വെറുതെ എല്ലാരുമായിട്ടുള്ള ഒരു ഓ ചിരിച്ചും കളിച്ചും കുറേ പേടിച്ചും കാരണം ഈ ഒരു സന്ദര്ഭത്തില് ഇങ്ങനെ ട്രക്ക് ചെയ്യും ബോളും കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടാറുണ്ട് അതായത് ഈ ട്രക്ക് ചെയ്യുന്നവരെ ഏറ്റവും മെയ്ന് കുഴപ്പമാണ് ഈ അട്ട കടിക്കുക നമ്മൾ നടക്കുന്ന ടൈമിൽ അട്ടകളും തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കടന്ന്പോകും അത് വഴി നമ്മുടെ കാലിലൊക്കെ പാടെ നമുക്ക് ഏറെ വേദന അനുഭവിക്കും പോകുന്ന വഴിക്ക് കല്ലും കല്ലും മുള്ളും ഓരോ പീസ്കളുമൊക്കെ നമുക്ക് എത്തും അതിൽ നമ്മള് ഏറെ പക്ഷേ ആ വേദനകളുടെ ഇടയിലും നമ്മള് ഏറെ സന്തോഷിക്കാറുണ്ട് കാരണം നമ്മൾ വേദനിക്കുന്നതിന്റെ ഇടയിലും ഇത്പോലെ ഒരു അനുഭവം കാരണം ഇതിന്റെ മുകളിൽ ഈ മലകളുടെ മുകളിൽ ചെല്ലുമ്പോള് അത് കാണുമ്പോൾ ഉള്ള നമ്മുടെ ഒരു റിയാക്ഷന് നമ്മുടെ സന്തോഷം പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നതാണ് അതിന്റെ മുകളിൽ ചെന്ന് പെടുക ചെല്ലുക കൂട്ടുകാരന്മാർ ആയിട്ടൊക്കെ പോകുന്ന ആ ഒരു യാത്ര വളരെ അതി മനോഹരമായ യാത്രകളാകണം ഇനിയും കുറേ ട്രകിങ്ങും ഹൈകിങ്ങോക്കെ ചെയ്യാന് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് കുറേ യാത്രകള് ഇനിയും പോകണം നമ്മൾ പോകുന്ന ടൈമ് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെയാണ് പോവുക നമ്മൾ ആദ്യം ചെന്ന് ഫ്രഷ് നമ്മള് ആ ഒരു ദിവസം അങ്ങ് പോകും രണ്ടാമത്തെ ദിവസം രാവിലെ തൊട്ടാണ് നമ്മൾ ട്രക്കിങ്ങാരംഭിക്കുക ട്രക്കിങ്ങാരംഭിച്ചു നമ്മള് ഭക്ഷണങ്ങള് കരുതും നമുക്ക് ആവശ്യമായ സാധനങ്ങള് ഫസ്റ്റെട് കുടിവെള്ളം കുടിവെള്ളം ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കയ്യില് കരുതും നമ്മള് എന്നിട്ടാണ് നമ്മൾ പോവുക എവിടേലും കൂട്ടുകാരന്മാർ ഒക്കെയായിട്ട് മലമുകളിലിരുന്നു നമ്മൾ ഫുഡ്കഴിക്കുന്നതും ഒരുമിച്ചിരുന്ന് ആഹാരം ഷെയർ ചെയ്ത് കഴിക്കുന്നതും ഒക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നമ്മൾ കാണാത്ത സസ്യങ്ങളും കാണാത്ത ജീവജാലങ്ങളും നമ്മൾ തന്നെ അത്ഭുതപെട്ട് പോകുന്ന പല സംഭവങ്ങളും സന്ദര്ഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ കാണാത്ത പല ജീവികളെയും പൂമ്പാറ്റകള് ആണേൽ പോലും നമ്മൾ കാണാത്ത പല സ്റ്റൈല്ല് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് ഒരു ഇത്പോലെത്തെ സംഭവങ്ങള് നമ്മുടെ പ്രകൃതിയില് ഉണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റും ആ തണുപ്പിൽ ആ മല ആ മരങ്ങളുടെയും പുല്ലുകളുടെയും കാടുകളുടെ ഇടയിൽ കൂടി നമ്മൾ നടന്ന് പോകുമ്പോൾ വളരെ വളരെ സന്തോഷമാണ്